പ്രിയപ്പെട്ട മാസിക അല്ലെങ്കിൽ പത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസികയായാലും പത്രമായാലും എല്ലാവർക്കും അവരുടെ വർക്കേഴ്സിന് പലതരം ശൈലികളാണ് ഉള്ളത് ഞാൻ കൂടുതലായി യൂസ് ചെയ്യുന്നത് മൊബൈൽ ഫോണിൽ നമ്മൾക്ക് ലഭിക്കുന്ന വ്ളോഗ്സാണ് അഥവാ ഓരോ വീഡിയോസ് അതിലേതാണ് ഏത് മേഖലയാണ് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും മോട്ടിവേഷനും എൻ്റർടെയിൻമെൻ്റും ആയിട്ടുള്ള വ്ളോഗ്സാണ് ഞാൻ കാണാറുള്ളത് മോട്ടിവേഷൻ സ്പീക്സ് കാണുന്നതിലൂടെ നമുക്ക് പലതര ചിന്തകളും തോട്സും നമുക്ക് മനസ്സിലേക്ക് കടന്നുവരും നമ്മൾ ഈ ഒരു പതിനാല് പതിനഞ്ച് ഏജുള്ള കുട്ടികൾക്കാണ് കൂടുതലായി മോട്ടിവേഷണൽ സ്പീക്സ് ഉപകാരപ്രദമാകുന്നത് കാരണം നമുക്ക് മുൻപോട്ടുള്ള പഠനത്തിലായാലും ഏതൊരു വഴിക്കാണ് പോകേണ്ടത് എന്ന ചിന്ത വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾക്ക് കാരണം ഇപ്പോഴത്തെ ജോലി സാധ്യതകളും എല്ലാം തന്നെ കുറഞ്ഞു പോകുന്നുണ്ട് പല ജോലികളും ഔട്ട് ഫീൽഡായി മാറുന്നുണ്ട്